ഇപ്പോൾ നമ്മുടെ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നേ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ കുറേ അധികം ആളുകൾ തന്നെ ഇപ്പോൾ നഗരത്തിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട് പക്ഷേ ഗ്രാമങ്ങളിൽ തന്നെ താമസിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ലത് നഗരത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ കുറേയധികം ഫാക്റ്ററികൾ പിന്നെ ഈ വണ്ടിയിൽ നിന്ന് വരുന്ന കുറേ പുകയും കാര്യങ്ങളും കാരണം അവടത്തെ ഒരു അന്തരീക്ഷം തന്നെ ഭയങ്കരമായിട്ട് മലിനമായിട്ടിരിക്കുകയാണ് പിന്നെ പ്ലാസ്റ്റിക്ക് പിന്നെ നല്ല ശുദ്ധമായ വെള്ളമൊന്നും കിട്ടില്ല പിന്നെ അവിടെ അവിടത്തെ ആളുകൾ തന്നെ ഈ പുഴയിലും കുളത്തിലൊക്കെ കൊണ്ടു പോയി ആണ് ഈ വേയ്സ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് അങ്ങനെ വന്നു കഴിയുമ്പം അവിടെ ഒരു ഇത് ഒരു എഞ്ചോയ്മെൻ്റൊന്നും അങ്ങനെ കിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ കാര്യമെന്ന് പറയുമ്പോൾ ഇവിടെ കുറേ കുന്നുകളും നല്ല പുഴകളും വയൽ പിന്നെ വൈകുന്നേരം ആയാലും ഇവിടെ കുറേ ചായക്കടയും പിന്നെ ഇവിടത്തെ പോലെ ആളുകളും പിന്നെ നല്ല വായുവും കിട്ടും നമ്മുടെ നാട്ടിൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഈ ഇതൊന്നും നഗരത്തിൽ ചെന്നു കഴിഞ്ഞാൽ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്